ഹലോ ഞാൻ നേരത്തെ ഒരു പ്രൊഡക്റ്റ് ഡെലിവെറിക്ക് വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങള് ആ സമയത്ത് ഞാൻ തന്നിരുന്ന ഡെലിവറി അഡ്രസ് ദയവ് ചെയ്ത് ഒന്ന് ചേഞ്ച് ചെയ്യണം എനിക്ക് മറ്റൊരഡ്രസിലേക്കാണ് ഷിപ്മെൻ്റ് വേണ്ടത് സോ നിങ്ങൾ ദയവ് ചെയ്തിട്ട് അതൊന്ന് നോട്ട് ചെയ്തിട്ട് ഞാൻ പഴയ തന്ന ആ ഡെലിവറി അഡ്രസ് ഒന്ന് ചേഞ്ച് ചെയ്ത് പുതിയത് ആക്കുകയായിരുന്നെങ്കിൽ വളരെ ഉപകാരപ്രദമായിരുന്നു എനിക്ക് ഞാൻ പണ്ട് തന്നിരുന്ന അല്ലെങ്കിൽ മുൻപേ തന്നിരുന്ന ഡെലിവറി ഡെലിവറി ചെയ്യേണ്ട ആ സ്ഥൽ അഡ്രസില് ചെറിയ മാറ്റം വരാൻ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പണ്ട് താമസിച്ചുകൊണ്ടിരുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ ആ ഒരു അഡ്രസ്സിൽ നിന്ന് ഞാൻ ഇപ്പം പ്രെസെൻറ്റ്ലി മൂവ് ചെയ്തിട്ടുണ്ട് സോ അത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുവാണ് നിങ്ങൾക്ക് എത്രയും വേഗം അതൊന്ന് അതൊന്ന് അപ്ഡേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതൊന്ന് ചേഞ്ച് ചെയ്ത് തരികയായിരുന്നെങ്കിൽ എന്നെക്കൊണ്ടുള്ള അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്ത് പോയതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് നിങ്ങൾ ആ ഡെലിവറി ഡേറ്റ് എക്സ്റ്റെണ്ടായി അല്ലെങ്കിൽ പോസ്ടപോൺ ചെയ്ത് വെക്കേണ്ട ആവശ്യം ഉണ്ടായി ഉണ്ടാകാതെ വരും സോ അതൊന്ന് ചെയ്ത് തരണം